എടാ ഡിജി ലോക്കറിന്റെ ഒരു മെയിലെനിക്ക് വന്നായിരുന്നു അപ്പം അതൊന്ന് നമ്മള് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും നമ്മുടെ പാസ്വേഡ് അടിച്ച് കൊടുക്കുമ്പം നമ്മുടെ ഫോണിലെ ഡോക്യുമെൻറ്റോ കാര്യങ്ങളാക്കെ ചോരുവോ അപ്പം അ അതിനെക്കുറിച്ച് നീ അപ്പം ഈ വർക്ക് ചെയ്യുന്നതാണല്ലൊ സൈബർലൊക്കെ അന്നേരം അതിന്റെ സുരക്ഷയെക്കുറിച്ചൊക്കെ നിനക്ക് വല്ലതും അറിയാവോ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഒത്തിരി ഞാൻ ആ പാസ് വേർഡ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഡോക്കുമെൻറ്റിനാണ് കൊടുത്തേക്കുന്നത് എന്നൊന്നും എനിക്കങ്ങനെ അറിയത്തില്ല അപ്പം ഞാനത് മറന്ന് പോയി അപ്പം നമുക്ക് എന്തേലും നമ്മുടെ ജീവിതത്തില് എന്തേലും പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മുടെ ഫോൺ ഹാക്കെയ്യുവോ അങ്ങനെ ഉള്ള കാര്യങ്ങളെ എന്തേലുവൊക്കെ സംഭവിക്കുമോ നിനക്കതിനെക്കുറിച്ചൊക്കെ അറിയാവോ അപ്പം അങ്ങനെ ഉള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പറഞ്ഞ് തരണം കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനത് അറിതെ ഓ ലോഗ് ലോഗിന് ചെയ്തും പോയി ഇനി ഇപ്പം നമ്മുടെ ഇതിന്റെ അകത്ത് കിടക്കുന്ന ഒത്തിരി ഡോക്കുമെന്റ് കിടപ്പുണ്ട് വീടിന്റേതാണേലും ലൈഫിൻ്റെ ആണേലും ഒത്തിരി കിടപ്പുണ്ട് അപ്പത്തേക്കും ആ കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാനായിട്ടാണ് കാരണം നമുക്ക് തട്ടിപ്പൊന്നും നമ്മളതിന്റ അകത്ത് പോയി പെടാന് പാടില്ലല്ലൊ അപ്പം അതുകൊണ്ടാണ് അപ്പം എന്തേലും കാര്യത്തിൽ നിനക്ക് ച് അറിയാം എന്നുണ്ടെങ്കിൽ എന്നോട് പറയണം അപ്പം നിനക്കും ചിലപ്പം മെയില് വന്ന് കഴിഞ്ഞെങ്കിൽ എനിക്കും അറിയാവുന്ന കാര്യങ്ങള് ഞാനും നിനക്ക് പറഞ്ഞ് തരാം കേട്ടോ അപ്പം നീ നോക്കുക ശ്രദ്ധിക്കുക